ഹലോ ആ പറയൂ ആരാണ് അതെ അതെ പറയൂ എന്തിനാണ് വിളിച്ചത് ആ പറയൂ ആതിര എന്തിനാണ് വിളിച്ചത് ആതിര സമയം കളയാതെ എന്തിനാണ് വിളിച്ചതെന്ന് പറയൂ ഗോൾഡ്ന്ന് പറയുമ്പോൾ ഏകദേശം എത്ര പവനുണ്ടാവും ഇപ്പം ഇവിടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ബാക്കിയുള്ള ബാങ്കുകളെ അപേക്ഷിച്ചിട്ട് സെവൻ പോയിൻറ്റ് ഫൈവ് പെർസൻറ്റേജാണ് ഒരു പവന് ഞങ്ങൾ പലിശ ഈടാക്കുന്നുള്ളത് ഒരു മാസ് പെർ മന്ത്ട്ടോ പക്ഷേ നിങ്ങൾക്കതെങ്ങനെ

ഏകദേശം ഏകദേശം എത്ര കാലാവധി പിടിക്കും നിങ്ങൾ പണയം തിരിച്ചെടുക്കാനായിട്ട് ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചെടുക്കാനായിട്ട് ഇങ്ങനെ നിങ്ങൾ മന്ത്ലി നിങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റായിട്ട് പൈസ അടയ്ക്കുന്നുണ്ടോ അങ്ങനെ അട ആണാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ഇവിടെ സാധാരണ ബാങ്ക് ഗോൾഡ് പണയം വെയ്ക്കുന്ന സമയത്ത് ആധാർ കാർഡും പിന്നെടുത്ത ഒരു ഫോട്ടോയും വേണം പിന്നെ കുറച്ച് സമയം പിടിക്കും പത്ത് പതിനഞ്ച് പവനുണ്ടന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സമയം പിടിക്കും ഇപ്പം അപ്പം ആധാർ കാർഡും ഫോട്ടോയും പിന്നെ ആരുടെ പേരിലാണോ വെയ്ക്കണ്ടത് അവരുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ് അതായത് ഇവിടത്തെ ഈ ബ്രാഞ്ചിൻ്റെ പെരിന്തൽമണ്ണ എസ് ബി ഐ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട് ഉണ്ടായിരിക്കണം ആധാർ കാർഡിൻ്റെ കോപ്പിയും ഫോട്ടോയും ആ അതാണ് നിർബന്ധം നിർബന്ധമായും വേണ്ടത് പിന്നെ അക്കൗണ്ട് ബുക്ക് അതുണ്ടല്ലോ അല്ലേ ആതിരേടെ പേരിൽ അക്കൗണ്ടില്ലേ ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ വന്നാൽ ശരിയാക്കി തരാം കേട്ടോ വേറെ ഡൗട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ ഓക്കെ ശരി താങ്ക് യൂ